ഞാൻ എൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എന്നു വെച്ചാൽ ഒരാറിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് പാട്ടിനോട് വല്ലാത്തൊരു പ്രാന്തായിരുന്നു അന്ന് അന്നെല്ലാം എനിക്ക് എങ്ങനെയെങ്കിലും പഠിച്ച് ഈ ചെറുത്തുരുത്തി കലാമണ്ഡലത്തിൽ പഠ പഠിച്ച് വളർ വളരണമെന്നായിരുന്നു എൻറ്റാഗ്രഹം അന്ന് ഞാൻ പഠിക്കാൻ പോയ എൻ്റെ വീട്ടിലോട്ട് ഒരു അപ്പൂപ്പൻ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ വർദ്ധക്യത്തിലൊക്കെ എത്തിയൊരാളായിരുന്നു അന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നെക്കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചു അന്നദ്ദേഹം എൻ്റെ പാട്ട് കേട്ടിട്ടാണ് പറഞ്ഞത് ഇവിടെ അടുത്തൊരു പാട്ട് മാഷുണ്ട് എൻ്റെ വീട്ടുകാരോടെന്നിട്ട് പറഞ്ഞു ആ മാഷിൻ്റെ അടുത്തേക്ക് പാട്ട് പഠിക്കാൻ വിട്ടു കൂടെയെന്ന് ചോദിച്ചു എന്നിട്ടാണ് ഞാനാ മാഷിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാനായിട്ട് എത്തിപ്പെടുന്നത് അവിടുന്നാണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് വളർന്നു തുടങ്ങിയത് പിന്നെ ഞാൻ അവിടെയെത്തിയതിനു ശേഷം മാഷ് എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പാട്ടു പാടാനും ഒരുപാട് അമ്പലങ്ങളിൽ കൊണ്ട് പോകും ഒരുപാട് ഒരുപാട് പാട്ട് പഠി ഞാൻ മറ്റ് കീർത്തനങ്ങളും സ്വരങ്ങളെല്ലാം പഠിച്ച് പകുതിയാകുമ്പം തന്നെ മാഷ് എന്നെ കീർത്തന കീർത്തനങ്ങളെല്ലാം പഠിപ്പിച്ച് തുടങ്ങി അങ്ങനെ ഞാൻ പാട്ടിൻ്റെ ലോകത്ത് മുഴുകി പോയിരുന്നു അതുപോലെ തന്നെ എനിക്ക് പിയാനോ വായിക്കാൻ ഭയങ്കര താത്പര്യമായിരുന്നു അന്നു ഞാൻ വാശിപിടിച്ച് എൻ്റെ വീട്ടിൽ വീട്ടിൽ വാശി പിടിച്ച് അച്ഛനോടും അമ്മോടും പറഞ്ഞൊരു പിയാനോ വേടിപ്പിച്ചു പക്ഷേ അതു വായിച്ച് വാങ്ങിച്ചത് ഞാനാണെന്നുണ്ടെങ്കിലും കൂടുതലുപയോഗം ഉണ്ടായത് എൻറ്റനിയനെ കൊണ്ടാണ് അവനിന്ന് എന്നേക്കാളും നന്നായി അസാധ്യമായിട്ട് ആ പിയാനോ വായിക്കും പക്ഷേ ഇന്നുമെൻ്റെ ഉള്ളിൻറ്റുള്ളിൽ ആ പിയാനോ പഠിച്ച് പൂർത്തിയാക്കണമെന്നുള്ളൊരാഗ്രഹം കിടപ്പുണ്ട് കാരണം അന്നെനിക്കത് പഠിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇന്ന് ഞാനത് പഠിക്കാൻ ഒരുപാടാഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പാട്ടിൻ്റെ ലോകം എന്നു പറഞ്ഞാൽ അതെനിക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു ജീവിതം തന്നെയായിരുന്നു അത് എൻ്റെ ഒരു ജീവനെപ്പോലെ തന്നെ ആയിരുന്നു സംഗീതത്തിൽ മുഴുകിയൊരു ജീവിതം തന്നെയാണ് ഞാൻ നയിച്ചു കൊണ്ടിരുന്നത് പിന്നെ അത് എവിടെ വെച്ചോ മുറിഞ്ഞു പോയി പക്ഷേ ഇനിയും എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ തീർച്ചയായും ആ ലോകത്തോട്ട് കടന്നു ചെല്ലും